ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് സുഹൃത്തെ എനിക്ക് പാസ്പോർട്ട് പുതുക്കേണ്ട ആവശ്യം അത്യാവശ്യമാണ് യൂറോപ്പിലുള്ള ഓരോ യാത്രകളും മനോഹരവും സുന്ദരവുമാണ് കേരള സർക്കാരിൻ്റെ ഇന്ത്യ സർക്കാരിൻ്റെ സേവ കേന്ദ്രത്തിൽ അപ്പോയിമെൻറ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ എൻ്റെ പദ്ധതികൾ പലതും ഉണ്ട് ആദ്യം യൂറോപ്പിലെ ഫ്രാൻസീസിൽ പോയിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് യാത്ര തുടങ്ങിയിട്ട് ഓരോ ഷെഡ്യൂളും ഓരോ ദിവസം ഓരോ ദിവസം വീതം ഓരോ സ്റ്റേറ്റുകളിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തങ്ങളായ മനോഹരമായ യൂറോപ്പിയൻ കാഴ്ചകളും എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്ലിജൻസിന് പുതിയ വ്യവസ്ഥകളും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെയും പഠിച്ചിട്ട് കേരളത്തിൽ പുതിയ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് ദിവസത്തിൻ്റെ യാത്രയിൽ എനിക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ദിവസം നിർബന്ധമായി കൊണ്ടിരിക്കയാണ് ഞാൻ യാത്ര പോകും അത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് ശേഷമായിരിക്കും യാത്രാ പദ്ധതികൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏഴ് ദിവസത്തിൽ ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഓക്കെ താങ്ക് യൂ